പെട്രോളിന് വില വളരെയധികമായി കയറുന്നുണ്ട് പിന്നെ പെട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതു നമ്മളുടെ എല്ലാ ഈ പരിസ്ഥിതിയൊക്കെ മലിനീകരണം ആക്കുന്നുണ്ട് പെട്രോള് പുക ഉല്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെത്തന്നെ പെട്രോളിൻ്റെ വില പണ്ടൊക്കെ നൂറും ഇരുന്നൂറിനും പെട്രോള് വാങ്ങിയ സ്ഥലത്ത് ഇപ്പോൾ അഞ്ഞൂറിനും ആയിരത്തിനൊക്കെ പെട്രോള് വാങ്ങേണ്ട സ്ഥിതി ആയിട്ടുണ്ട് പരമാവധി ഇത് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നല്ലതാണ് പോലെത്തന്നെ എൻ്റെ ബൈക്ക് എന്ന് വെച്ചാൽ പണ്ട് എന്ന് വെച്ചാൽ ഒരു അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ഒരു മൂന്ന് നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്ററൊക്കെ അറേഴ് എട്ട് കിലോമീറ്ററൊക്കെ പോയിട്ട് വരാമായിരുന്നു ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ പോവണമെങ്കിൽ നൂറ് രൂപേൻ്റെ എണ്ണ അടിക്കണം അപ്പം അങ്ങനെത്തെ ഒരു പ്രശ്നം ഉണ്ട് പോലെത്തന്നെ എവിടെയെങ്കിലും വണ്ടി നിന്ന് പോയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത്യാവശ്യത്തിന് നൂറ് രൂപയൊക്കേ കയ്യിലുളളൂ എങ്കിൽ കുടുങ്ങിപ്പോവും അങ്ങനെത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് വെച്ചാൽ മലിനീകരണം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും പുക അതായത് ഇതിനകത്ത് നിന്ന് വരുന്ന പുക ഭയങ്കര ദോഷമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പരമാവധി യെലട്രിക്കിലേക്ക് കടക്കുകയാ എല്ലാവരും